ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയാ പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയുന്നത് വാട്സ്പ്പ് ഒന്ന് പിന്നെ ഒരു സോഷ്യൽ മീഡിയ ആ യൂട്യൂബ് വാട്സ്പ്പ് ഇത് രണ്ടും മാത്രമാണ് ഞാൻ മീഡിയ ആയിട്ട് ഞാൻ യൂസ്സ് ചെയ്യുന്നത് അല്ല എങ്കിൽ എന്തെങ്കിലും സേർച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൂഗിളിൽ ചെയ്യും ഇത് രണ്ടും മാത്രമാണ് എനിക്കുള്ളു എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ല ഫേസ്ബുക്ക് ഇല്ല ഞാൻ ഓൾറെഡി അത് എടുത്തതായിരുന്നു എനിക്ക് അക്കൗണ്ടും ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് എൻ്റെ സമയം ഒരുപാട് നഷ്ടപ്പെടുന്ന പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ അതുകൊണ്ട് യാതൊരു ഉപയോഗം എൻ്റെ ലൈഫിൽ ഉണ്ടായി എന്നെനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ടു തന്നെ അത് രണ്ടിനേയും ഞാൻ മാറ്റി നിർത്തി ഏറ്റവും അത്യാവിശ്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അതിനൊരു പ്രോസസ്സായിട്ട് ഞാൻ വാട്ട്സപ്പിനെ യൂസ് ചെയ്യുന്നു അത് വളരെ അധികം പ്രയോജനകരമാണ് പല ഗ്രൂപ്പുകളിലൂടെ പല മെസ്സേജുകളും പല വാർത്തകളും പല കാര്യങ്ങളും എനിക്ക് അറിയാനും കേൾക്കാനും കഴിയുന്നുണ്ട് വാട്ട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും അ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എൻ്റെ സമയപരിധി മൂലം അല്ലെങ്കിൽ ഞാൻ എൻ്റെ സമയത്തെ ഞാൻ ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനേ മാറ്റി നിർത്തിയിരിക്കുന്നു എന്ന് മാത്രം അപ്പോൾ വാട്ട്സാപ്പാണ് ഞാൻ ഏറ്റവും കൂട്തലായിട്ട് ഉപയോഗിക്കുന്നത് അത് നല്ല രീതിയിൽ തന്നെ അതായത് നമുക്ക് ആവശ്യമുള്ള കോൺടാക്റ്റ് ഉള്ളവർക്ക് വേണ്ടി മാത്രം നമുക്ക് അത് സെറ്റ് ചെയ്യാൻ പറ്റുന്നു അതുപോലെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും പബ്ലിഷ് ചെയ്യാൻ എനിക്ക് അതിനോട് താല്പര്യമില്ലാത്തതു കൊണ്ട് മറ്റ് രണ്ട് കാര്യങ്ങളിൽ ഞാൻ അധികം സമയം ഇൻവെസ്റ്റ് ചെയ്യാറില്ല ഞാൻ ഏറ്റവും കൂട്തൽ സമയം കൊടുക്കുന്നത് വാട്ട്സാപ്പിലാണ് അതും ലിമിറ്റഡ് ടൈമിൽ മാത്രമാണ് ഒരു അധ്യാപിക എന്ന നിലയിൽ എനിക്ക് ഈ സോഷ്യൽ മീഡിയയുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ടതുമുണ്ട് കാരണം നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾ അവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതും അഡിക്റ്റ് ആകുന്നതും ഈ ഒരു മേഖലയിലാണ് അപ്പോൾ എനിക്കും അതിനേപ്പറ്റി ഒരു ധാരണ ഇല്ലാതിരുന്നാൽ എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികളിൽ എനിക്ക് അവരിലുണ്ടാകുന്ന മാറ്റങ്ങളേയും ഒബ്സർവേഷന് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാത്തിലും ഒരു ഒരു അറിവ് നേടാൻ നോക്കുന്നുണ്ട് പക്ഷെ കൂടുതൽ സമയം അതിനു വേണ്ടി ചിലവഴിക്കാൻ ചിലവഴിക്കുന്നില്ല അതിന് ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല